ഹലോ സ്വിഗ്ഗി ഞാൻ എനിക്ക് ഒരു ഓർഡര് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അടുത്ത മാസം നാലാം തീയതി അതായത് ജനുവരി നാല് എൻ്റെ വീടിൻ്റെ പാലുകാച്ചലായിരുന്നു അപ്പോള് അതിലേക്ക് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു ഞങ്ങളൊരു പത്ത് പതിനഞ്ച് അല്ല ഒരഞ്ഞൂറ് ആയിരം ആൾക്കാരുടെ പരിപാടിയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോള് എനിക്ക് ഫുഡും കാര്യങ്ങളും വേണമായിരുന്നു ഇഡ്ഡലിയും ദോശയാണ് വിചാരിക്കുന്നത് അപ്പോള് എനിക്ക് നിങ്ങളുടെ റസ്റ്റോറൻ്റിൻ്റെ എന്താ പ്രത്യേകത വരുന്ന എന്തെങ്കിലും ഫുഡ് ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കില് അത് മറക്കാതെ അതിൻ്റെ കൂടെ വെക്കണം പിന്നെ പിന്നെ ഉച്ചയ്ക്ക് ചോറും പിന്നെ എന്തൊക്കെ കൂട്ടുകറികളുണ്ടോ അതും പിന്നെ രണ്ടുകൂട്ടം പായസം അച്ചാറും പപ്പടവും എന്താണോ നിങ്ങളുടെ അടിപൊളി ആയിട്ടുള്ളത് അതെല്ലാം അതില് വയ്ക്കാൻ മറക്കണ്ട ചട്ടിണി ദോശ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കൂടെ ചട്ടിണി എന്തായാലും വയ്ക്കണോട്ടോ അത് മറക്കാൻ പാടില്ല അത് പണ്ടിവിടെ ആരോ പറയ്ണ്ടാരുന്നു നിങ്ങളുടെ ഫുഡില് അത് അടിപൊളിയാണ് അപ്പോള് അത് മറക്കാതെ അതവരോട് പറയണം കഴിച്ചിട്ട് അടിപൊളിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോള് അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ചൂസെയ്തത് തക്കാളി ചട്ടിണിയും മുളകിൻ്റെ എന്തെങ്കിലും ഒരു എരിവായിട്ട് ഒക്കെ ഉണ്ടായിക്കോട്ടെ അതിൻ്റെ കൂടെ എന്താ ഇനിയിപ്പോള് കുട്ടികളായതുകൊണ്ട് എരിവ് മാത്രമാവണ്ട അപ്പോള് അവർക്ക് പറ്റിയ രീതിലുള്ളതും എല്ലാം അതിലുണ്ടായിക്കോട്ടേട്ടോ